ഹലോ ഞാൻ ക്യാബ് ബുക്ക് ചെയ്തിരുന്നു പാലക്കാടു നിന്ന് തൃശ്ശുരിലോട്ടേക്കായിരുന്നു ബുക്ക് ചെയ്തിരുന്നത് ക്യാബ് ഇതുവരെ എൻ്റെ ലൊക്കേഷനിൽ എത്തിയിട്ടില്ല എനിക്ക് ഇൻ്റർവ്യൂ ഏർലി മോർണിങ്ങ് ആയതുകൊണ്ടാണ് ഞാൻ ക്യാബ് ബുക്ക് ചെയ്തത് പക്ഷെ ഇതുവരെ ക്യാബ് ഇവിടെ എത്തിയിട്ടില്ല സോ ഞാൻ ആ ക്യാബ് റദ്ദാക്കുകയാണ്